ഞാൻ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഇപ്പം ആയോധനകല പഠിക്കുന്നുണ്ട് എട്ടു വർഷം കൊണ്ടു ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം കുംഫു ആണ് പഠിപ്പിക്കുന്നത് ഞാൻ കരാട്ടെയും കരാട്ടെ പഠിച്ചിട്ടാണ് കുംഫു പഠിക്കാനായിട്ടു പോയത് നമുക്ക് കൂടുതലും ഈ ഫൈറ്റിങ് അങ്ങനെയുള്ള സിനിമകൾ കണ്ട് ഇൻ ഇൻസ്പയറായിട്ടാണ് ഞാനത് പഠിക്കണം എന്നത് ചിന്തിച്ചതു പോലും പണ്ട് എല്ലാവരും ജാക്കിച്ചാൻ അല്ലെങ്കിൽ ബ്രൂസ്ലി അവരെയൊക്കെ സിനിമകളൊക്കെക്കണ്ട് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഞാനീ ഇതു പഠിക്കാനായിട്ടു പോയത് പക്ഷെ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്നതു പോലെ അങ്ങനെയൊരു എന്താ പറയുക ക്രൂവൽ മൈൻറ്റോ അങ്ങനെയൊന്നുമില്ല നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതിനേപ്പറ്റി അതിനേപ്പറ്റി നമ്മൾ കൂടുതലും പഠിക്കുമ്പോൾ അതായത് ഇപ്പം മാർഷൽ ആട്ട്സാണ് ഞാനിപ്പം കുംഫു പഠിച്ചിട്ട്

അതു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് നമ്മളായിട്ട് ഒരു മനുഷ്യനെ ഒന്നു നോവിയ്ക്കുക പോലും ചെയ്യില്ല നമ്മൾ മാക്സിമം ഓരോ പ്രശ്നത്തിൽ നിന്നും നമ്മളൊഴിവായിപ്പോകുന്നതല്ലാതെ നമ്മളൊരു കാരണവശാലും ആരെയും ഉപദ്രവിക്കില്ല പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടടുത്ത് ഞാനാദ്യമേ പറഞ്ഞേക്കുന്നത് ഒരു കാര്യം എന്നു പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഇതു പഠിക്കുന്നത് നമ്മുടെ സ്വയരക്ഷക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇപ്പോൾ ഒരാളെ തല്ലി പോയി പണം മേടിക്കണമെന്നോ അങ്ങനെ ഒരു കാര്യത്തിനു വേണ്ടിയിട്ട് അല്ല നമ്മളത് പഠിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വയരക്ഷക്കു വേണ്ടിയിട്ടും നമ്മുടെ നമ്മുടെ എന്തു പറഞ്ഞെ നമ്മുടെ നമ്മുടെ പേർസണൽ കാര്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് ഇതു നിങ്ങളെ പഠിപ്പിക്കുന്നത് പഠിക്കുന്ന സമയത്ത് അതായത് ഒ ഒരാളഡ്മിഷനെടുക്കാൻ വരുന്ന സമയത്ത് അവരോടു പറഞ്ഞിട്ട് നമ്മൾ അവർ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളാ ക്ലാസ്സിൽ ആദ്യം ഒരു കാലെടുത്തു വെച്ചു കയറ്റുന്നതു പോലും നമ്മളവർക്ക് വളരെ വ്യക്തമായിട്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതു വേറൊന്നും കൊണ്ടല്ല നമ്മൾ കാരണം വേറൊരാൾ വിഷമിക്കരുത് ഇപ്പം നമ്മൾ ഈ കുംഫു പഠിച്ചിട്ട് ഈ കുംഫു കൂടുതലും നമ്മൾ പഠിക്കുന്നത് മർമ്മങ്ങൾ അങ്ങനെയുള്ള കാര്യമാണ് മസിൽസ്സൊക്കെ ഇപ്പോൾ പെട്ടെന്നൊരു മസിൽ നമുക്കൊന്ന് എന്ത്വാ ഡാമേജാക്കണമെന്നു വിചാരിച്ചാൽ സിമ്പിളായിട്ടു സാധിക്കും ഒരു പഞ്ച് ചെയ്താൽ തീരാകുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ ഇപ്പം നമ്മുടെ മുൻപിൽ വന്നു നില്കുന്നവരുടെ മൈൻറ്റായിരിക്കത്തില്ല നമുക്ക് നമ്മുടെ അടുത്ത് ഒരു പ്രശ്നത്തിനൊരാൾ വന്നാൽ മാക്സിമം നമ്മളതീന്നൊഴിവായിപ്പോകുക നമ്മളിപ്പോൾ ഇതു പഠിച്ചിട്ട് നിൽക്കുന്ന ഒരാൾ ഒരാളുടടുത്തും വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനൊ പോകത്തില്ല ഇപ്പം ഞാൻ ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് പിള്ളേരോളം ഞാനിപ്പം പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഞാൻ എല്ലാ കുട്ടികളുടടുത്തും പറഞ്ഞു കൊടുത്തേക്കുന്ന ഒറ്റക്കാര്യം നിങ്ങളുടെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ സ്വയ രക്ഷക്കു വേണ്ടി മാത്രം നിങ്ങൾ ഉപകരിക്കുക അതായത് ഉപയോഗിക്കുക എന്നു വെച്ചാൽ ഇപ്പം ഒരാളിപ്പം നമ്മുടെ മുൻപിൽ വന്ന് ഇപ്പം ഒരു ഒരു അഞ്ചു പേർ നമ്മളുടെ മുൻപിൽ വന്ന് നമ്മളെ പിടിച്ചു കൊണ്ടു പോകുക അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് നീ കൈയും കെട്ടി മാറിനിന്നിട്ട് യാതൊരു കാര്യവുമില്ല ആ സമയത്ത് നിനക്ക് പ്രതിരോധിയ്ക്കുക നീ പ്രതിരോധിയ്ക്കുക നിനക്ക് അവിടെ നിന്ന് സേയ്ഫാവായി ഈ സമയങ്ങളിൽ മാത്രം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നീ ചെയ്യുക അല്ലാതെ ഒരാളൊന്ന് ഒന്ന് പിടിച്ച് ഉന്തിയെന്നോ അല്ലെങ്കിലൊന്നു പിടിച്ചു തള്ളിയെന്നോ എന്നു പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അയാൾ അവരെ അറ്റാക്ക് ചെയ്യുക അപ്പം ആ ആ ചിലപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എന്നും നമുക്കതൊരു തീരാ വേദനയാകും പിന്നെ കേസാകും വഴക്കാകും പിന്നെ നമ്മളതിൻ്റെ പുറകേ പോകേണ്ടി വരും അതു കൊണ്ടൊരു കാരണവശാലും നമ്മൾ നമ്മളായിട്ട് ഒരാളെ ഉപദ്രവിക്കരുത് മാക്സിമം എത്ര പ്രശ്നം എത്ര വലിയ പ്രശ്നമായാലും ശരി തന്നെ അതു ചിരിച്ച് ഒഴിവാക്കിപ്പോകണം പിന്നെ എല്ലാത്തിൽ നിന്നും എല്ലാറ്റിനും നമുക്ക് എന്താ പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നമുണ്ടായാലും ശരി തന്നെ നമുക്ക് ഒന്ന് ഒന്ന് ദേഷ്യപ്പെട്ടു നിൽക്കുന്നവരുടെ മുഖത്തു നോക്കി ഒന്ന് സഹതാപത്തിൽ ഒന്ന് എന്നു വെച്ചാൽ നമ്മളവരോടു തിരിച്ചു ദേശ്യപ്പെടാതെ അവരുടെ അടുത്ത് സൗമ്യമായി സംസാരിച്ചു തീർക്കാവുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മളങ്ങനൊഴിവാക്കി വിടുക ഒരു കാരണം കൊണ്ടും നമ്മളായിട്ട് ആരെയും ഉപദ്രവിയ്ക്കാൻ പോകരുത് ഞാനിപ്പം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്നു പറഞ്ഞാൽ കുട്ടികളുടെയടുത്ത് കൂടുതലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു ഒരു കരണം കൊണ്ടും നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കരുത് പിന്നെ നമ്മൾ ഇതു മത്സരത്തിൻ്റെ രീതിയിൽ പോകുമ്പം ഇപ്പം നമ്മൾ ഇപ്പം ഒരാളും തോൽക്കണം എന്നു കരുതിയിട്ടൊരു മത്സരത്തിലും പങ്കെടുക്കത്തില്ല അപ്പം നമ്മൾ നമ്മൾ ജയിക്കണം എന്നുള്ള ഇതു വെച്ചിട്ട് തന്നെയാണ് നമ്മളിരിക്കണെ അതു പക്ഷെ മത്സരമായിരിക്കണം അല്ലാതെ അതു പേർസണൽ വിരോധമോ നമുക്ക് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ വേറൊരാളുടെയടുത്തു പോയി പെരുമാറുക ഈ ഫൈറ്റിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്തു തന്നെ ഞാനൊരുപാട് കണ്ടിട്ടുണ്ട് ഈ ഫിറ്റിങ്ങിനിറങ്ങുന്ന സമയത്തു തന്നെ ആ കുട്ടികളെ ഈ വിരോധം മനസ്സിൽ വെച്ചു പെരുമാറണത് ഞാനൊരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ കോച്ചായിട്ടു പോകുമ്പോൾത്തന്നെ നമുക്ക് അതറിയാൻ പറ്റും അത് അങ്ങനെ അങ്ങനൊരിക്കലും ചെയ്യരുത് ഞാൻ എൻ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടേത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരേ ഒരു കാര്യമിതാണ് പിന്നെ അവരുടെ അവർക്ക് ഇതിനേപ്പറ്റി ഏതൊരു സമയത്തും എന്തൊരു സംശയവും അല്ലെങ്കിൽ അവർക്കൊരാവശ്യം വന്നാൽ നമ്മളതിനു മുന്നിൽ നിൽക്കും നല്ലത് അല്ലെങ്കിൽ ശരി എന്നു തോന്നുന്ന ഏതൊരു കാര്യം ഏതൊരാളുടടുത്തും തർക്കിക്കാം അല്ലാതെ തെറ്റിനു വേണ്ടിയിട്ട് ഒരു കാരണം കൊണ്ടും ഇപ്പം തെറ്റായൊരു കാര്യത്തിന് നമ്മളൊരു ഒരു കാരണവശാലും സപ്പോട്ട് ചെയ്യരുത് അതിനിപ്പം നമ്മൾ നമ്മുടെ ശരി മറ്റൊരാളുടെ തെറ്റായിരിക്കാം പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ശരിയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ എന്തു കാര്യവും നമുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ ചെയ്യുന്നത് ശരിയായിരിക്കണം അല്ലാതെ ഒരു കാരണം കൊണ്ടും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ഇപ്പം ഞാൻ ഇപ്പം പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് അവിടൊരു വഴക്കുണ്ടാകുന്നു അപ്പം ഞാനവിടെ വന്നിട്ട് അവരുടടുത്ത് ബഹളം വെച്ചു ഞാൻ പെട്ടെന്ന് അവരെക്കയറി അറ്റാക്ക് ചെയ്തു അങ്ങനെ ഞാൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കെന്തെങ്കിലുമിതു സംഭവിച്ചു പോയിക്കഴിഞ്ഞാൽ അത് എന്നും അവരുടെ ഒരു ഇപ്പോൾ ഒരാളില്ലാതെയായിപ്പോകും അവിടെ ഒരാൾ ഒരാളില്ലാതായി പോകുമ്പോൾ അയാളെ പ്രതീക്ഷിച്ച് അയാളെ അയാളുടെ തണലിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും അവർക്കെല്ലാവർക്കും അയാളില്ലാതായിപ്പോകും അവരുടെ ആ ഒരു എന്താ പറയുന്നത് അയാളുടെ ആ ഒരാബ്സെൻസ് ആർക്കും അവിടെ പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം പിന്നെ ഈ മർമ്മം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരാളെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരാളെയും വേദനിപ്പിക്കാനോ അല്ലേ നമ്മളീ പഠിപ്പിച്ചു കൂ വിടുന്ന കാര്യങ്ങൾ നമ്മളെ ഈ നമ്മളിപ്പം എന്താ പറയുന്നത് നമ്മൾ പേന പിടിക്കുന്ന ഈ വിരൽ ഈ വിരൽ പോലും ഈ വിരൽ പോലും നമ്മൾ ആഞ്ഞൊരു എന്താ പറയുന്നത് ആഞ്ഞൊന്നമർത്തിയാൽ ആ വിരലവിടെ തീർന്നു അപ്പം ഓരോ ഓരോ ഞരമ്പുകളും ഓരോ ഞരമ്പുകൾളും നമുക്ക് ഇന്ന ഇന്ന സ്ഥലത്ത് ചെയ്ത അല്ലെങ്കിൽ ഇന്നയിന്ന സ്ഥലത്ത് നമ്മളൊന്ന് അമർത്തിയാൽപ്പോലും നമ്മൾ നിശ്ചലമായിപ്പോകാം നമുക്ക് മരണം വരെ സംഭാവിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരാളെ ഉപദ്രവിക്കരുത് ഒരാളെയും മനഃപൂർവ്വം നമ്മൾ ഒരാളെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു കാരണവശാലും ഈ മാർഷൽ ആർട്ട്സ് പഠിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മളത് ഒഴിവാക്കി വിടണം എന്നുവെച്ചാലവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന ആൾകാർ ഇല്ലയെന്നല്ല പറയുന്നേ ഇങ്ങനെ ഇതു പഠിച്ച് അതായത് എനിക്ക് ഇത് പഠിച്ചിട്ട് നല്ലരീതിയിൽപ്പോകണം അല്ലെങ്കിൽ ഞാൻ ഇതാണെൻ്റെ തൊഴിൽ എന്നു പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട് ഇതാണെൻ്റെ പാഷനെന്നു പറഞ്ഞിട്ട് പഠിക്കുന്നവരുണ്ട് പിന്നെ ഇതു പഠിച്ചിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു ഒരാൾക്കാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന ഇത്രയും കുട്ടികൾ ഇത്രയും കുട്ടികൾക്കു വേണ്ടിയിട്ട് അവരുടെ ഒരാവശ്യം വന്നാൽ നമ്മൾ മുൻപിൽത്തന്നെക്കാണും അല്ലാതെ മറ്റൊരു ഇതൊന്നുമില്ല വേറെ വേറെയെന്നാ പറയാനാ ഇപ്പോൾത്തന്നെ നമുക്ക് പേർസണൽ ട്രെയിനിങ്ങ് വരുന്നുണ്ട് നമുക്ക് പേർസണൽ ട്രെയിനിങ്ങ് വരുന്നുണ്ട് അപ്പം അതിൽ പല ആൾക്കാരും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളവർക്ക് പേർസണലായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്തിന് അപ്പം എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം എന്നു പറഞ്ഞാൽ ഈ മാർഷൽ ആർട്ട്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പല എന്നു വെച്ചാൽ പട്ടാളക്കാർക്ക് ആർമി ക്യാമ്പിൽ പോലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം എന്നു പറഞ്ഞൽ ഒരു ആർമീ ക്യാമ്പിൽ കോച്ചായിട്ട് പോകണം എന്നുള്ളതാണ് അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാനാർമ്മിയിൽ പോകണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ മുന്നോട്ടു പോയത് അത് വന്നവഴിക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റൊക്കെ ആയിട്ട് എനിക്കങ്ങനെ അതിനു സാധിച്ചില്ല പക്ഷെ എനിക്ക് എൻ്റെ ഒരാഗ്രഹം എനിക്ക് ആർമ്മിയിൽ ആർമ്മിയുടെ ലേബലിലറിയപ്പെടണം എന്നാണെൻറ്റാഗ്രഹം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാനീ പതിനഞ്ച് വർഷം ഇത്രത്തോളം കഷ്ടപ്പെട്ടത് അതേപോലെതന്നെ കഷ്ടപ്പെട്ടു പഠിച്ചു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരുടെ ഒരൂ ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് അവരുടെ ഏതു കാര്യത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് പിന്നെ ഒരു കാരണം കൊണ്ടും നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കരുത് അത് എത്ര ഇതെന്നു പറഞ്ഞാലും ശരി തന്നെ നമ്മൾ മാക്സിമം പ്രശ്നങ്ങളൊഴുവാക്കി വിടുക പിന്നെ നമുക്ക് അത്രക്കു സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്നുവെച്ചാൽ നമ്മളേക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രം നമ്മൾ നമ്മൾ പഠിച്ച കാര്യ നമ്മളിപ്പം ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പറയണെ പഠിക്കുന്ന കാര്യങ്ങളവിടെത്തന്നെ വെച്ചേക്കാൻ വേണ്ടിയല്ല അപ്പം അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക